ഞങ്ങളുടെ പ്രദേശത്തെ ജനങ്ങൾ തു കടകളിൽ പോയി തുണിയെടുത്ത് അത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് പ്രത്യേക ഫാഷനിലും ഓരോ ഫാഷനിലും രീതിയിലുമായിട്ട് ജനങ്ങളത് ഓരോരുത്തരവരോരുടെ ആവശ്യാനുസരണം ഇഷ്ടാനുസരണം അത് തുന്നുന്നവരുടെ അടുത്ത് കൊണ്ടു പോയി അത് കൊടുത്ത് അതിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ളവരുടെ അടുത്ത് കൊണ്ടു പോയി തയ്യൽക്കാരുടെ അടുത്തു കൊണ്ടു പോയി അത് തയ്പ്പിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകമായിട്ട് സ്ത്രീകൾ ചുരിദാറാണ് ധരിക്കാറുള്ളത് അപ്പോഴാ ചുരിദാറ് ധരിക്കുന്നതിന് വേണ്ടിയുള്ള തുണികൾ പോയി കടകളിൽ നിന്നും വാങ്ങിച്ചു കൊണ്ട് വരികയും എന്നിട്ട് അത് അത് തുന്നി തൈ തുന്നൽ കടയിൽ കൊണ്ടു പോയി അത് തുന്നി നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിഷ്ടപ്പെട്ട ഫാഷനിൽ അത് തയ്ച്ച് എടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സാരി ധരിക്കാറുണ്ട് അപ്പോഴവർക്ക് സാരി ബ്ലൗസ് വളരെ നല്ല ഫാഷനിലും ഓരോരുത്തർക്കിഷ്ടപ്പെട്ട ഓരോരുത്തർക്ക് ഇണങ്ങുന്ന രീതിയിൽ സാരി ബ്ലൗസുകൾ അവർ തയ്ച്ചെടുക്കും അതിനു വേണ്ടി പ്രത്യേകം അത് തയ്ക്കാനായിട്ട് പ്രാഗത്ഭ്യമുള്ള ആളുകളുടെ അടുത്തു പോയി അതു നന്നായിട്ട് തയ്ച്ചെടുത്ത് സാരി ഉടുക്കാറായിട്ടുണ്ട് ഉടുക്കാനായിട്ടുള്ള രീതി നല്ല രീതിയിൽ ഇപ്പം ബ്ലൗസ് തയ്ച്ചെടുക്കും അങ്ങനെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും ഉടുപ്പുകൾ ഒക്കെ ഇങ്ങനെ തുന്നിയെടുക്കാറാണ് തുണി വാങ്ങിച്ചു കൊണ്ട് വരികയും ഉടുപ്പുകളൊക്കെ തുന്നിയെടുക്കുകയുമാണ് ചെയ്യാറുള്ളത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുന്ന വസ്ത്രങ്ങൾക്ക് ഓരോ പ്രത്യേക ഒരു ഒരു സ്വാധീനമുണ്ട് അതെല്ലാവർക്കും അതിനോട് വളരെയേറെ താൽപര്യമുള്ളതാണ് ഓരോരുത്തരുടെയും ശരീരഘടനക്കിണങ്ങുന്ന രീതിയിൽ ഓരോരുത്തർക്കിഷ്ടമാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ വസ്ത്രങ്ങൾ തയ്ച്ചെടുക്കുവാനായിട്ട് ഞാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ നല്ലൊരു വരുമാനം ഈ തയ്യൽക്കാർക്ക് വന്ന് ചേരുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഞങ്ങൾ ഒന്നും പരമ്പരാഗതമായിട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടില്ല ആ ഒരു രീതിയിലുള്ള തൊഴിലിനോടൊരു ഒരത് അത്രത്തോളം ഇവിടെ അത്രത്തോളം ഒരു അതങ്ങനെ വന്നു ചേർന്നിട്ടില്ല പിന്നെ ഈ തയ്ച്ചെടുക്കുവാനായിട്ടുള്ള തയ്ച്ചെടുക്കുവാനായിട്ട് കുറേയേറെ ആളുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് തൈ തയ്യൽ പ്രത്യേകമായിട്ട് രീതി തയ്യൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തയ്ച്ചെടുത്ത് ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചിക്കിണങ്ങുന്ന വിധം വസ്ത്രങ്ങൾ തയ്ച്ചെടുത്ത് ഇടാവുന്നതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യു ചെയ്യുന്നത് നമ്മൾ ഒരു നാടിൻ്റെ ഒരു ഞങ്ങളുടെ നാടിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് ചുരിദാറും സ ചുരിദാറ് ധരിക്കുന്നത് സാരി ധരിക്കുന്നതൊക്കെ അങ്ങനെ ഉള്ളൊരു കാര്യമാണ്